ഫുട്ബോളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരു കാണുന്നൊരു കായിക വിനോദം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലബാണ് കേരള ബ്ലാസ്റ്റേർസ് എഫ് സി കേരള ബ്ളാസ്റ്റേർസിന്റ്റെ ഹോം ഗ്രൗണ്ടാണു കൊച്ചി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൊച്ചി ഓരോ കളിക്കും എന്തെന്നില്ലാത്ത ആരാധകരാണ് കേരളത്തിലെ ഈ ഒരു ഫുട്ബോൾ കളി കാണുന്നതിനുവേണ്ടി കേരള ബ്ളാസ്റ്റേർസിന്റ്റെ കളി അത്രയും ആ ഒരു പിന്നെ ഇതുവരെ ഒരു സീസണിലും ഇതുവരെ ഒരു കപ്പ് പോലും നേടാഞ്ഞിട്ടും ഓരോ സീസണിലും അത്രയും കാണികളാണ് കളി കാണാൻ വരുന്നേ അതില് നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും നിരവധി മലപ്പുറത്തുന്നൊക്കെ പ്രത്യേകിച്ച് മലപ്പുറം മലബാർ മേഖലയിലെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോളിനെ നെഞ്ചേറ്റി നിൽക്കുന്ന ആൾക്കാരുള്ളത് അതില് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും ഫുട്ബോളിന്റ്റെ കാര്യത്തില് ഒരു ക്ലബ് എന്ന നിലയിൽ പിന്നെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പിന്നെ കളി നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നെ